ഹലോ ആര്യാസ് ഹോട്ടലല്ലേ ഞാൻ കുറച്ച് മുമ്പ് കൊറ കുറച്ച് ഫുഡ് ഐറ്റംസ് ഓഡറ് ചെയ്തായിരുന്നു ഒര് രണ്ട് ഫ്രൈഡ് റൈസും ഒരു ചില്ലി ഗോപിയും ഓർഡറ് ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് ഒരു എന്താ വെജിറ്റബിൾ കറിയും കൂടി അതിൻ്റെ കൂടെ വേണം അപ്പം അതിന് എത്ര രൂപ ഞാൻ അങ്ങോട്ട് തരേണ്ടി വരും ഓക്കെ ഓക്കെ അപ്പം ഒരുപാട് സമയം എടുക്കുമോ ഓഡർ കിട്ടാനായിട്ട് ഒരുപാട് ടൈം പിടിക്കുമോ അത് ശെരി ഓക്കെ ഓക്കെ അപ്പം എനിക്ക് ഒരു വെജിറ്റബിൾ കറിയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണേ പിന്നെ നേരത്തെ പറഞ്ഞ ആ ഓർഡറ് തന്നെ അത് തന്നെ മതി രണ്ടു ഫ്രൈഡ് റൈസും ഒരു ചില്ലി ഗോപിയും പിന്നെ ഇപ്പം പറഞ്ഞ വെജിറ്റബിൾ കറിയും എത്ര സമയം എടുക്കും വരാനായിട്ട് ആണോ ഓ ഓ ആ അധികം വൈകാണ്ട് കിട്ടണ കിട്ടണ കിട്ടണമായിരുന്നു ഓക്കെ ആ ശരി ശരി കുഴപ്പമില്ല ഓക്കെ താങ്ക്യൂ